ഹലോ മാം ഞാനൊരു ലോണിന് ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ചതായിരുന്നേ ഹലോ ആ കണ്ടായിരുന്നു മാം ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ഒരു ഫൈവ് ലാക്ക് അതിനെന്തൊക്കെ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ഓക്കേ മ്

പന്ത്രണ്ട് പവൻ കൊടുത്താൽ അമ്പത് അമ്പത് സെന്റിൻ്റെ അതിന് എന്തൊക്കെയാണ് വേണ്ടത്

മ് ഓക്കെ ഓക്കെ ആ ഉണ്ട് ഉണ്ട്

ആ ഓക്കെ എന്നാൽ ഞാൻ പിന്നെ ബാങ്കിലോട്ട് വരാം